ഞാൻ ടി വിയിൽ ഞാൻ ഫോണിൽ ഒരുപാട് ഡാൻസ് വീഡിയോസ് കാണാറുണ്ട് ഞാൻ ഒരു എട്ട് ഒൻപത് കൊല്ലം ഡാൻസ് പഠിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ക്രേയ്സ് ആണ് ഡാൻസ്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ ഡാൻസും സ്റ്റാറ്റ്സൊക്കെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എനിക്ക് ക്ലാസിക്കലും ഇഷ്ടമാണ് വെസ്റ്റേൺ ഇഷ്ടമാണ് മോസ്റ്റ് ഓഫ് ഞാൻ കാണുന്നത് ക്ലാസിക്കലാണ് ഞാൻ പഠിച്ചതും ക്ലാസിക്കലാണ് എനിക്ക് കളിക്കാൻ ഇഷ്ടവും ക്ലാസിക്കലാണ്